ഹലോ ഇത് ലാൻഡ്ലൈൻ ഓഫീസല്ലേ സർ എൻ്റെ പേര് അമൃത എന്നാണ് ഞാനിവിടെ കോങ്ങാട് മഞ്ചേരിക്കാവ് എൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് താമസിക്കുന്നത് സർ എൻ്റെ ലാൻഡ്ലൈനിനെ ബന്ധിപ്പിക്കുന്ന വയറിങ്ങിന് കേടുപാട് വന്നതായിട്ട് അതിലൊരിങ്ങനെ എലിയെന്തോ കടിച്ചിട്ട് കേടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകാരണം നമുക്ക് കോളൊന്നും കണക്റ്റാകുന്നും ഇല്ല അതേപോലെത്തന്നെ നമുക്ക് അങ്ങോട്ട് കോള് കണക്ട് ചെയ്യാനും പറ്റുന്നില്ല ആ അതെ സർ അതെ അതെ ആ ആ കേബിളിന് തന്നെയാണ് കേടുവന്നിട്ടുള്ളത് അതെ സർ നമുക്ക് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് ഇങ്ങോട്ട് കോള് വരുന്നത് അറിയുന്നുണ്ടെങ്കിലും നമുക്കത് എടുക്കാൻ എടുത്ത് കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ക്ലിയറായിട്ട് കേൾക്കുന്നും ഇല്ല നമുക്ക് ചില സമയത്ത് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കുള്ള കോള് കണക്റ്റ് ആവുന്നും ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് സർ അതെ സർ നമുക്കിപ്പോൾ വേറെ ഒരു ഇതും ഒരു വഴിയും ഇല്ല കാരണം നമ്മൾ ഈ ഒരു ലാൻഡ്ലൈനിന് ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോള് വരുന്നത് ഉണ്ട് നമ്മൾ അതുപോലെത്തന്നെ അങ്ങോട്ടേക്ക് നമുക്ക് കോള് വിളിക്കണം എന്നുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ പോയി വിളിക്കേണ്ടി വരികയാണ് അതെ സർ ഇത് എത്രയും പെട്ടെന്ന് നേരെയാക്കിത്തരാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ഉപകാരമായിരുന്നു സർ അത് കേബിളിൻ്റെ ഒരു പ്രശ്നമാണ് ഇതിൽ കാണുന്നത് അവിടെ അത് മുറിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതെ സർ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കത് മാറ്റി ഇന്നന്നെ മാറ്റിത്തരികയാണെങ്കിൽ അത്രയും ഉപകാരം ഉണ്ട് സർ ഓക്കെ സർ താങ്ക് യു